യാത്രകൾ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാന് എനിക്ക് പല പല സ് അദര് കണ്ട്രീസിൽ സ്വിറ്റ്സെര്ലാന്റ് പോലെ തന്നെ ന്യൂ സീലാന്റ് അതുപോലത്തെ ഉള്ള നല്ല നല്ല കണ്ട്രീസിൽ പോവാന് ഇഷ്ടപ്പെടുന്ന ആളാണ് ദൂരെ ദൂരെ യാത്രകളിൽ പ്ലെയിനിലാണെങ്കിലും മറ്റുള്ള അദര് കണ്ട്രീസിൽ ഇപ്പം നോര്ത്ത് ഇന്ത്യ പോലത്തെ ഉള്ള പല പല രാ നമ്മുടെ ച അയോദ്ധ്യ പോലത്തെ ഉള്ള അമ്പലങ്ങൾ അങ്ങനെ തിരുപ്പതി പോലെയുള്ള വലിയ വലിയ അമ്പലങ്ങളിലേക്ക് ഒക്കെ യാത്ര ചെയ്യാൻ വളരെ അധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് സിംപ്ലി ഡ്രൈവ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ഡ്രൈവ്സ് അതുപോലെ തന്നെ ബ പ്രത്യേകിച്ച് പാർട്ട്നറുടെ കൂടെ ആവുമ്പോൾ നമ്മൾ അത് എന്ജോയ് ചെയ്ത് യാത്രയെ ആസ്വദിക്കും പിന്നെ അറ്റ് ലീസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവ് ആയാൽ പോലും ഞാൻ വളരെ അധികം ആസ്വദിക്കുന്ന ഒരാളാണ് പിന്നെ അതുകൂടാണ്ട് വ വലിയ വലിയ അമ്പലങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കാണാൻ പറ്റാത്ത പല പല സ്ഥലങ്ങൾ ഉണ്ടാവും ഇപ്പം രാജസ്ഥാന് പോലെ ഉള്ള നല്ല നല്ല ഗാര്മെന്റ്സ് കിട്ടുന്ന സ്ഥലങ്ങൾ അതുപോലെ നോര്ത്ത് ഇന്ത്യയിൽ ഗുജറാത്തിൽ ഒക്കെ ഉള്ള മില്ലുകൾ അതുപോലെ അഹമ്മദാബാദിലുള്ള പല പല സാരി മില്ലുകൾ അങ്ങനെ ഉള്ള പല പല നല്ല നല്ല സ്ഥലങ്ങൾ സന്ദര്ശിക്കാന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന് ബെ കൂടുതലും യാത്രയെ കൂടുതല് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാന്